ഇപ്പോൾ ഇപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തമായ കായിക വിനോദങ്ങൾ എന്നൊക്കെ പറഞ്ഞാ ഒരുപാടുണ്ട് ഇപ്പോൾ നമുക്ക് പറയാനാണെങ്കിൽ ക്രിക്കറ്റ് വരുന്നുണ്ട് പിന്നെ പറയാനാണെങ്കിൽ ഹോക്കി കാര്യങ്ങൾ അങ്ങനെയൊക്കെ വരുന്നുണ്ട് പിന്നെ നോർമലി ഇന്ത്യക്കാര് അത്യാവശ്യം ഇഷ്ടപ്പെടുന്നൊര് ഗെയിം തന്നെയാണ് ഫുട്ബോൾ അതു വരുന്നുണ്ട് ഇപ്പോൾ നമുക്ക് അതിനകത്ത് അത്യാവശ്യം ഇന്ത്യയിലുള്ളവർക്ക് കൂടുതലായിട്ടും ഇഷ്ടപ്പെടുന്ന ഒരുപാട് താരങ്ങളുണ്ട് ഇപ്പോൾ അതിനെപ്പറ്റി പറയുകയാണെങ്കി ഇപ്പോൾ ഫുട്ബോൾ പ്ലെയേഴ്സൊക്കെ തന്നെ ഒരുപാട് പേരുടെ ഫാൻസ് ആയിട്ടുണ്ട് ഇപ്പോൾ മെസ്സിയുണ്ട് റൊണാൾഡോയുണ്ട് നെയ്മർ ഉണ്ട് അങ്ങനെ ഒരുപാട് പ്ലെയേസുകളെ ഇപ്പഴും ആരാധിക്കുന്ന ഒരുപാട് ആളുകള് ഇന്നും ഇന്ത്യയിലുണ്ട് പിന്നെ ക്രിക്കറ്റ് ഒക്കെയാണെങ്കിൽ നമുക്ക് പറയാം കോഹ്ലി വിരാട് കോഹ്ലി ധോണി പിന്നെന്താ രോഹിത് ശർമ രാഹുല് കെൽ രാഹുൽ അങ്ങനെ ഒരുപാട് പ്ലെയേഴ്സ് ഇന്നുമുണ്ട് സഞ്ജു സാംസൺ അങ്ങനെ എത്രയോ പ്ലേയർസിനെ ഇഷ്ടപ്പെടുന്നവര് ഇന്ന് എന്താ പറയുക ഇന്ത്യയില് ഉണ്ട് അപ്പോൾ അവരൊക്കെ അത്യാവശ്യം നല്ല പ്ലെയേഴ്സ് തന്നെയാണ് അതുകൊണ്ടാണ് ജനങ്ങൾ ഇന്നും അവരെ ഇഷ്ടപ്പെടുന്നതും അത്യാവശ്യം നല്ല രീതിക്ക് മുന്നോട്ട് കൊണ്ടുപോകുന്നതും അപ്പോൾ ഇതുപോലെ കായിക വിനോദങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേർ ഇപ്പോഴും ഉണ്ട്